കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് തീർച്ചയായും പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു കാരണം ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അവരുടെ അവരുടെ മാതൃഭാഷയാണ് മലയാളം എങ്കിലും സ്വന്തമായി സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ അറിയാം എന്നാൽ എഴുതാൻ അറിയില്ല അങ്ങനെ പറയുന്നവരാണ് മിക്കതും പക്ഷെ സ്വന്തം മാതൃഭാഷ ആയിട്ടു കൂടി മലയാളം എഴുതാനോ പറയാനോ അറിയില്ല എന്ന് പറയുന്നത് ലജ്ജാവഹം മാത്രമാണ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നതിൽ പ്രധാനമാണ് മലയാളം അറിഞ്ഞിരിക്കുക എന്നത് അത് അവരുടെ മാതൃഭാഷ കൂടിയാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ എല്ലാ ഭാഷയ്ക്കും ഭാഷയ്ക്കും പ്രാധാന്യമുണ്ട് എന്നാൽ മലയാളം കൂടി അറിഞ്ഞിരിക്കണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് എഴുതിത്തരുമോ എന്ന് വല്ല ആൾക്കാരും പറയുമ്പോൾ എങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ വല്ല വയസ്സായ ആൾക്കാരും വയോജനങ്ങൾ ആരെങ്കിലും നമ്മളെ സമീപിക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിത്തരുമോ കണ്ണ് കാണാനില്ല എന്ന് പറയുമ്പോൾ നമുക്കത് എഴുതാണ്ടിരിക്കാൻ പറ്റുന്നത് ഏറ്റവും ലജ്ജാവഹമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് മലയാളം തീർച്ഛയായും അറിഞ്ഞിരിക്കണം ഒരു കവിതയിൽ പറയുന്നത് പോലെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ സ്വന്തം ഭാഷ അറിഞ്ഞിട്ട് അറിയാതെ ബാക്കി എല്ലാ ഭാഷകളിൽ എന്ത് ബിരുദം എടുത്തിട്ടും കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം